മറ്റു ഭാഷകൾ വച്ച് നോക്കുമ്പോൾ മലയാളം ഭാഷ ഭയങ്കര കഷ്ടമാണ് പഠിക്കാനായിട്ട് മറ്റു ഭാഷക്കാരെ വച്ച് നോക്കുമ്പം അവർക്ക് മലയാളം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് അവരുടെ ഭാഷ പഠിച്ചെടുക്കാൻ മലയാളികളായ നമുക്ക് ഭയങ്കര ഈസിയാണ് പിന്നെ മലയാളത്തിൽ കൂട്ടി വായിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അത് വച്ച് മറ്റു ഭാഷകൾ നോക്കുമ്പം അത് അവരുടെ ഭാഷ ഒന്നും കൂടി നമുക്ക് ഈസിയാണ് മലയാളത്തിൽ ഇതിനൊത്തിരി ഗ്രാമറുകളൊക്കെ ഒത്തിരിയുണ്ട് കൂട്ടക്ഷരങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതു വച്ച് നോക്കുമ്പം മറ്റു ലാംഗ്വേജൊക്കെ ക്ലാസ്സിക്കൽ ലാംഗ്വേജാണ് സംസാരിക്കാനൊക്കെ നമുക്ക് നല്ല താൽപ്പര്യവും ഇഷ്ടവും ഒക്കെ തോന്നും അതിനൊരു പ്രത്യേക ട്യൂണുണ്ട് അവരുടെ ഭാഷയിലൊക്കെ സംസാരിക്കുമ്പം നമുക്കൊരു അഭിമാനമേ ഉള്ളു